അടുക്കളകളിലും ശുചി മുറികളിലും ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് പാറ്റയുടെ ശല്യം എലീടെ ശല്യമൊക്കെ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോള് പലപ്പോഴും ചെയ്യുന്നത് കടകളിൽ നിന്ന് വാങ്ങുന്ന കീടനാശിനികളഅ ഉപയോഗിക്കുകയാണ് എന്നാൽ പരമ്പരാഗതമായിട്ട് വീടുകളിലൊക്കെ ചെയ്ത് വരുന്നത് എന്ന എന്നാന്നുവച്ചാല് ഈ എലിപ്പെട്ടിക്കകത്ത് പഴമോ തേങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ട് എലിപ്പെട്ടി വയ്ക്കുകയാണെങ്കില് വളരേ എളുപ്പത്തില് എലീനെയൊക്കെ നമുക്ക് വീട്ടില്നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെതന്നെ ഈ ചിലര് ഈ പഴത്തിലും മറ്റും ഭക്ഷണ വസ്തുക്കളിലും വിഷം ചേർത്തിട്ട് അടുക്കളയിലോ പറമ്പിൻ്റെ സൈ സൈഡിലോ ഒക്കെ വയ്ക്കുകയാണെങ്കില് അത് എലി കഴിക്കുകയും പിന്നെ അത് എലി ചത്തു പോവുകയും ചെയ്യും അങ്ങനെ എലിയുടെ ശല്യം അങ്ങനെയാണ് പൊതുവെ വീടുകളിലെല്ലാം കുറച്ചുകൊണ്ടുവരുന്നത് പിന്നെ മറ്റൊരു വലിയ പ്രശ്നമെന്നുവച്ചാല് പാറ്റയുടെ ആണ് പാറ്റയാണെങ്കിലും ഒരുപാട് പെരുകിക്കഴിഞ്ഞാല് അത് നമ്മുടെ പാത്രങ്ങളിലും നമ്മളെ വീട്ടുപകരണങ്ങളിലുമൊക്കെ ചെന്നിരിക്കുകയും പിന്നീട് അതൊക്കെ ഒരുപാട് രോഗ കാരണം ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്രായമായവർക്കു എല്ലാം ഏത് പ്രായക്കാരാണെങ്കിലും ഒരുപാട് രോഗങ്ങൾ ഈ പാറ്റയില് നിന്നും എലിയില് നിന്നും പകരുകയും അത് വളരെ ഗുരുതരമായ അസുഖങ്ങൾക്ക് വരെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോള് ഒരു പരിധിവരെ ഈ എലിയുടെയും പാറ്റയുടെയുമൊക്കെ തോത് വീട്ടില്നിന്നും കുറയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോളഅ അടുക്കളയിലും ശുചി മുറിയിലും എലി പാറ്റ തുടങ്ങിയവയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഒന്നെങ്കിൽ ചെയ്യുന്നത് കീടനാശിനികള് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലെ എലിപ്പെട്ടി തുടങ്ങിയ പരമ്പരാഗതമായ കെണികള് വച്ച് എലീനെ തുരത്തുക എന്നതാണ് പണ്ട് പറയുമായിരുന്നു ഈ കർഷകൻ്റെ മിത്രമെന്ന് പറഞ്ഞ് പാമ്പിനെ പറയുമായിരുന്നു കാർണം പാമ്പ് ഒരു കൃഷിയിടത്തിലോ അല്ലെങ്കില് വീട്ടിൻ്റെ പരിസരത്തിലുള്ള എലികളെ എല്ലാം കഴിക്കുകയും അങ്ങനെ വീട്ടിലും എലികളെല്ലാം വീട്ടീന്ന് ഒഴിവാകുകയും ചെയ്യും അല്ലെങ്കില് പിന്നെ പൂച്ചയാണ് ഉള്ളത് പൂച്ച ഒരു വീട്ടിലുണ്ടെങ്കില് പൂച്ച വീട്ടിലെ എല്ലാ എലീനെ പിടിക്കുകയും അത് പൂച്ചയ്ക്കും ഭക്ഷണമാകും വീട്ടിലെ എലിയും പോയിക്കിട്ടും പാറ്റേനെ ആണെങ്കില് ഈ പല്ലിയും തുടങ്ങിയ ചില പ്രത്യേക പ്രാണികളൊക്കെ കഴിക്കിന്ന ജീവികള് വീട്ടില് കാണുമല്ലോ ഈ പല്ലീ പിന്നെ അതുപോലെയുള്ള ഇൻസെക്റ്റ്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ പാറ്റേനെ ഒഴിവാക്കാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നതാണ് പരമ്പരാഗതമായ രീതികളില് ഉള്ളിയും ഇഞ്ചിയും ചതച്ച് വീടിൻ്റെ അകത്ത് വെയ്ക്കുകയാണെങ്കില് അത് പാറ്റയും മറ്റ് കീടവസ്തുക്കളെയും ഒഴിവാക്കാനായിട്ട് ഒരുപാട് സഹായകരമാണ് ഇപ്പോള് അടുക്കളയിലും ശുചി മുറികളിലും എലി പാറ്റ എന്നിവ ഒഴിവാക്കണ്ടത് നല്ല ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോള് കീടനാശിനികളുടെ ഉപയോഗം വേറൊരു വഴിയും ഇല്ലെങ്കിലും കീടനാശിനികള് തന്നെ ഉപയോഗിക്കണം ഇല്ലെങ്കില് പ്രകൃതി ദത്തമായ രീതികളെന്തെങ്കിലും നമ്മള് പണ്ട് തൊട്ടേ ചെയ്യുന്നുണ്ടെങ്കില് അതായിരിക്കും കൂടുതല് നല്ലത് കീടനാശിനികളൊക്ക വയ്ക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്നുവച്ചാല് ഈ കുഞ്ഞ് കുട്ടികള് അല്ലെങ്കില് അങ്ങനെ ഉള്ളവര് ഉണ്ട് എങ്കില് ഒരിക്കലും കീടനാശിനികള് നമുക്ക് വീട്ടിനകത്തോ അല്ലെങ്കില് പറമ്പിലുമൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അതവര് എടുത്തുകഴിച്ച് അത് വലിയ പ്രശ്നങ്ങക്ക് കാരണമാകും അപ്പോള് അത് അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോള് കീടനാശിനികള് ഒന്നുങ്കില് ഉയരത്തിലോ അല്ലെങ്കില് കുട്ടികൾക്കെത്താത്ത സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കീടനാശിനികള് തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും വരാത്ത ടൈപ്പ് കീടനാശിനികള് എന്നാൽ എലീനെ ഒഴിവാക്കാൻ പറ്റുന്ന കീടനാശിനികള് വേണം തെരഞ്ഞെടുക്കാന് ഒരുപാട് വീര്യം കൂടിയ കീടനാശിനികള് തെരഞ്ഞെടുത്തിട്ട് അവിടെ അത് വെച്ചിട്ട് മനുഷ്യർക്ക് രോഗങ്ങളൊന്നും വരാന് പാടില്ല അപ്പോള് കീടനാശിനികള് തന്നെ പല തരത്തിലുണ്ട് അപ്പോള് അത് അത് ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കേണ്ടത് ഒരാവശ്യകതയാണ് പിന്നെ പഞ്ചായത്തുകളിലും മറ്റും ബോധവൽക്കരണ ക്ലാസ്സുകളും പിന്നെ ഈ എ കീടനാശ്നികള് പ്രകൃത ദത്ത കീടനാശിനികള് പഞ്ചായത്തീന്നും കൃഷി ഭവനീന്നും ഒക്കെ ഒരു പരിധിവരെ എല്ലാ വീടുകളിലും കൊടുക്കും അപ്പോള് അതും ഈ എലീനേം പാറ്റേനേം ഒഴിവാക്കാനായിട്ട് ഒരു നല്ല കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുക്കളയിലും ശുചി മുറിയിലൊക്കെ എലിയും പാറ്റെയൊക്കെ ഒരുപാട് വരുന്നത് നമ്മള് വളരെ കൃത്യമായിട്ട് ശുചിത്വം പാലിച്ചില്ലെങ്കില് അവിടെ ഇങ്ങനെ എലിയും പാറ്റയൊക്കെ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട് ഈ കിഴങ്ങ് അല്ലെങ്കില് ഗോതമ്പ് ഇതൊക്കെ വളരെ അടച്ച് ഭദ്രമാക്കി വയ്ക്കുകയാണെങ്കില് എലിക്കൊന്നും കയറാൻ പറ്റാത്ത രീതിയില് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കില് ഒരു പരിധിവരെ ഇതീന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോള് എലിക്കൊക്കെ എപ്പോഴും ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങള് തുറന്ന് ഗോതമ്പും കിഴങ്ങുമൊക്കെ വച്ചുകഴിഞ്ഞാല് അത് ഒരു തവണ എലി വന്ന് കഴിച്ചുകഴിഞ്ഞാല് പിന്നെ എലിക്ക് മനസ്സിലാവും ഇവിടെ അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോള് അതിനെ പിന്നെയും പിന്നെയും അടുക്കളയിലേക്കൊക്കെ ആകർഷിക്കുന്ന പോലെയായിരിക്കും അത് അപ്പോള് നമ്മളീ ശുചിത്വം ഒരു പരിധിവരെ പാലിച്ച് കഴിഞ്ഞാല് ഈ കി ഈ എലിയും പാറ്റ തുടങ്ങിയവരടെ ശല്യം ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നന്നത് അപ്പോള് ആദ്യം ശുചിത്വം പാലിക്കുക പിന്നീടും വരുന്ന എലിയും പാറ്റയൊക്കെ നമ്മള് കീടനാശിനികളോ അല്ലെങ്കിലിങ്ങനെ കെണികളൊക്കെ വച്ച് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്